വയനാട് ജില്ലയിൽ ആഘോഷിക്കുന്ന പ്രധാന സാംസ്കാരിക ഉത്സവമാണ് ഓണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഇവിടെ നിന്നും എല്ലാവരും ഓണത്തിന് എത്തിച്ചേരുകയും അതുപോലെതന്നെ കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ഓരോ സംഘടനകളിലായാലും കുടുംബശ്രീകളിലാണെങ്കിലും ഓണപ്പരിപാടികളും അതിൻ്റെതായ ആഘോഷങ്ങളും ഉണ്ടായിരിക്കും പിന്നെ ഓണത്തിനു പൂക്കള മത്സരം അതുപോലെതന്നെ തിരുവാതിരകളി ഓണപ്പാട്ട് പിന്നെ ഓണപ്പാട്ട് മാവേലീന വരവേൽക്കൽ അതൊക്കെ ഒരാഘോഷമായിട്ടാണ് ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുക അപ്പോൾ പ്രധാനമായിട്ടും ഈ ഉത്സവത്തിന് ആഘോഷിക്കുമ്പോൾ എല്ലാ പരിപാടികളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് ഓണ പൂക്കൾ ഇടുന്നതായാലും തിരുവാതിരയ്ക്കായാലും എല്ലാത്തിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിലെ ആഘോഷത്തിൻ്റെ പ്രധാന സാംസ്കാരിക ഉത്സവം ഓണം ആയിട്ട് പറയുന്നു